പോലീസുകാർ മൂലം പലപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട് ഞാൻ വണ്ടിയായിട്ട് പുറത്ത് ഇറങ്ങുമ്പോഴും അല്ലാതെ എന്തെങ്കിലും പരാതി ബോധിപ്പിക്കാൻ ചെല്ലുമ്പോഴും എപ്പോഴാണെങ്കിലും പോലീസുകാർ പോലീസുകാരുടെ രീതിയിൽ അതായത് ആ ഒരു തീരെ മര്യാദ ഇല്ലാത്ത രീതിയിലും ഒരു തരത്തിലും ബഹുമാനം കൊടുക്കാത്ത രീതിയിലുമാണ് സംസാരിക്കാറുള്ളത് അവരവരുടെ സ്ഥാനം ദുരുപയോഗിക്കുക എന്ന് തന്നെ വേണം പറയാൻ വളരെ മോശമായ രീതിയിൽ തന്നെയാണ് അവര് എപ്പോഴും സംസാരിക്കാറ് അവർ മൂലം എനിക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട് ഞാൻ വണ്ടി കൊണ്ടു പോകുമ്പോഴും ആവശ്യമില്ലാതെ തടഞ്ഞു നിർത്തുകയും എനിക്ക് അങ്ങനെ തടഞ്ഞ് നിർത്തുക എന്നത് മൂലം എനിക്ക് എത്തിച്ചേരണ്ട സ്ഥലത്ത് സമയത്ത് എത്തിച്ചേരാൻ പറ്റായ്കയൊക്കെ ഉണ്ടായിട്ടുണ്ട് എപ്പോഴും അവര് അവര് അവരുടെ ആ സ്ഥാനം ദുരുപയോഗിക്കുക തന്നെയാണ് ചെയ്യുന്നത് ആവശ്യമില്ലാതെ ഫൈൻ അടപ്പിക്കുകയും മോശമായിട്ട് പെരുമാറുകയൊക്കെ ചെയ്യാറുണ്ടവർ പിന്നെ ഇതുവരെ വക്കീൽ മൂലമെനിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞത് പോലെ തന്നെ അവര് അവരുടേതായ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കാറുള്ളത് നമുക്ക് എന്താണ് വേണ്ടതെന്നൊ എ എന്തിനാണ് വന്നതെന്നോ അന്വേഷിക്കാനോ ഇതാക്കാനോ ഒന്നും ആരും നിൽക്കാറില്ല അവര് അവരുടെ കാര്യങ്ങളിൽ ഇങ്ങനെ ശ്രദ്ധിച്ച് അവരുടെ പേർസണൽ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നമ്മൾ ചെന്ന കാര്യത്തിനോട് വലിയ പ്രധാ പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്യാറുണ്ട് അതുപോലെത്തന്നെ നമുക്കിപ്പം എന്തേലും സർട്ടിഫിക്കറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളവിടെ ചെല്ലുന്നത് പഞ്ചായത്തിൽ ചെല്ലുന്നത് പക്ഷെ അന്നേരം അവര് നമ്മളെ ഇട്ട് വട്ടം ചുറ്റിക്കുകയല്ലാതെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ് തരാൻ അവര് ശ്രമിക്കാറില്ല നമ്മള് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് നമ്മളെ വട്ടം ചുറ്റിക്കുകയാണ് ചെയ്യാറുള്ളതവര്